ഞാൻ സാധാരണയായി അങ്ങനെ ഫോട്ടോകൾ ഗ്രാഫ് ചെയ്യാറില്ല പിന്നെ എന്തെങ്കിലും പ്രത്യേകമായി ഫങ്ഷനുകളോ അങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ മാത്രമേ അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ സമൂഹമായിട്ടുള്ള ഫോട്ടോകളൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളൂ അല്ലാതെ പേഴ്സണലായിട്ട് അങ്ങനെ ഇടക്കി ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ഇത് ചെയ്യാറില്ല എന്നോട് താ അങ്ങനെ പ്രത്യേക താല്പര്യം ഇല്ലായ്മ താല്പര്യം ഇല്ലായ്മയല്ല അങ്ങനെയങ്ങ് ചെയ്യാനായിട്ട് തോന്നാറില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ എന്തെങ്കിലും ഒക്കെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ വല്ല ടൂറുകൾ പോകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ളപ്പോൾ പിന്നെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക വിശേഷപ്പെട്ട ദിവസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഞങ്ങൾ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കൂട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത് അങ്ങനെ തനിച്ച് അങ്ങനെ ഫോട്ടോ എടുക്കയോ കൂടെ കൂടെ ഇടുകയോ അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ടൊന്നും സാധാരണ ചെയ്യാറില്ല